ഇന്ത്യയിൽ പ്രധാനമായിട്ടും നാല് തരത്തിലാണ് ഗതാഗതം നടക്കുന്നത് ഒന്ന് റോഡ് മാർഗ്ഗമുള്ള യാത്ര മറ്റൊന്ന് റെയിൽ പാത വ്യോമപാത അതുപോലെ തന്നെ കടൽ സഞ്ചാരം ഇങ്ങനെ നാല് തരത്തിലാണ് സഞ്ചാരങ്ങൾ നടക്കുന്നത് യാത്രകൾ ഗതാഗതം നടക്കുന്നത് മറ്റു ഗതാഗത മാർഗ്ഗങ്ങൾ പാരച്ചൂട്ടിലായിട്ടും മറ്റുമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതപൂർവ്വമാണ് വിരളമാണ് എങ്കിലും ഈ യാത്ര ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നേരിടുന്ന വെല്ലുവിളികൾ ഒന്ന് റോഡ് മാർഗ്ഗം നോക്കുകയാണെങ്കിൽ ട്രാഫിക് അതുപോലെ തന്നെ ഗതാഗത തടസ്സം അഥവാ ബ്ലോക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഗതാഗത തടസ്സം ഇന്ന് ജനങ്ങൾ വല്ലാതെ പൊറുതി മുട്ടുകയാണ് ആകാശയാത്രയിൽ അഥവാ വ്യോമപാതയിൽ പ്രധാനമായിട്ടും നേരിടുന്നത് അന്തരീക്ഷം ക്ലൈമറ്റ് അന്തരീക്ഷ വ്യതിയാനം അതുപോലെ അതായത് കാലാവസ്ഥ വ്യതിയാനം അതു പോലെ തന്നെ മറ്റും തരത്തിലാണ് ഇനി വ്യോമ പാദ സാധാ റോഡുകൾ മാർഗ്ഗമുള്ള യാത്ര അതു പോലെ തന്നെ കടൽസഞ്ചാരത്തിൽ പ്രധാനമായിട്ടും കടൽ തിരമാലയുടെ അതുപോലെ തന്നെ ടെ ഗർത്തം മറ്റും അധികരിക്കൽ അതുപോലെ തന്നെ അതിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇതേ പ്രശ്നങ്ങളാണ് നമ്മുടെ റെയിൽ പാതകളും നേരിടുന്ന വെല്ലുവിളികൾ അവ മെച്ചപ്പെടുത്താനായിട്ട് സ്വീകരിക്കേണ്ട ചില മാർഗ്ഗങ്ങൾ ഇന്ന് ഇന്ത്യ ഗവൺമെൻ്റ് നില കൊണ്ട് കൈ കൊണ്ടിട്ടുണ്ട്